ആണോ എത്ര ദിവസമായി ഇപ്പോള് ഏതായിരുന്നു ഡോഗ് ബ്രീഡേതായിരുന്നു ആ അതിൻ്റെ ഇൻജക്ഷനൊക്കെ കറക്റ്റെടുത്തായിരുന്നോ ആണോ എന്നാല്പ്പിന്നെ ജസ്റ്റ് കുറച്ച് ഉപ്പും പഞ്ചസാരയുംകൂടെയൊന്നു കലക്കിക്കൊടുത്തു നോക്കിയേ ഇപ്പോള് നോക്കിയാരുന്നോ എന്നിട്ട് മാറ്റൊന്നും കാണുന്നില്ല ഇപ്പൊള് വയറ്റില്നിന്നൊക്കെ പോകുന്നുണ്ടോ ആണോ യൂറിനും യൂറിനും കറക്റ്റായ്ട്ട് പോകുന്നുണ്ടോ അത് നോക്കിയിട്ടില്ല അല്ലേ അപ്പോള് നിങ്ങളിപ്പോള് എവിടെയാണ് ഉള്ളത് സ്ഥലം ആണോ ഞാനങ്ങോട്ടു വരണമെങ്കില് വരാം അല്ലെങ്കില് നിങ്ങൾക്കിങ്ങോട്ടു കൊണ്ടുവരാന് പറ്റുമോ നമ്മുടെ ഇവിടെയാണ് നമ്മുടെ കാട്ടിക്കുളം ടൗണില്ത്തന്നെയാണ് കൊണ്ടുവരാന് പറ്റുമായിരിക്കും

ഞാനിവിടെ ഏഴു മണിവരെയുണ്ടാവും ആ അവിടെ മറ്റേ എലിക്കും എലി ശല്യങ്ങളൊക്കെയുള്ളതുകൊണ്ടു വല്ല എലിവിഷമോ അങ്ങനെയെന്തെങ്കിലും വച്ചിട്ടുണ്ടായിരുന്നോ ആണോ ഇതിനിങ്ങനെ അങ്ങനെ അഴിച്ചുവിടലുണ്ടോ അതു ചിലപ്പോഴങ്ങനെ അത് ചിലപ്പോഴങ്ങനെ കഴിച്ചതാണോ എന്നും പറയാന് പറ്റില്ല കൊണ്ടുവരികയാണെങ്കില് നമുക്കത് ചെക്കെയ്തു നോക്കാം ഇന്നെപ്പോഴെത്തും ഇപ്പോള് നമുക്കു പെട്ടെന്നു തന്നെ നോക്കുന്നതായിരുന്നു നല്ലത് ചിലപ്പോഴീ തോട്ടത്തില്ക്കൂടെ നടക്കുമ്പോള് വല്ല പാമ്പിൻ്റെ കടിയെന്തെങ്കിലും ഏറ്റിട്ടുണ്ടോ എന്നും പറയാന് പറ്റില്ലല്ലോ ആ അതിനിപ്പോഴെത്ര വയസ്സുണ്ട് ആണോ ഓക്കെ എന്നാലേ നോക്കിയിട്ട് ഹോസ്പിറ്റലിലേക്കു കൊണ്ടുവാ കെട്ടോ എത്രയും പെട്ടെന്നു തന്നെ എത്തിക്കാൻ നോക്കിക്കോ